ഞങ്ങളുടെ ജീവിതത്തിലെ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലെ രാവിലെ അഞ്ചേ കാലിന് തന്നെ എല്ലാ ദിവസവും എഴുന്നേൽക്കും എഴുന്നേറ്റാൽ ഉടനെ അല്പസമയം ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട് പ്ര വ്യക്തിപരമായ പ്രാർത്ഥന നയിക്കും അതിനുശേഷം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ചതിനു ശേഷം ബൈബിൾ വായ്ക്കാ വായനയ്ക്കായിട്ട് അരമണിക്കൂർ ചെലവഴിക്കും ബൈബിൾ വായനയും ക്ക് ശേഷം പൊതുവായ പ്രാർത്ഥനയുണ്ട് ആ പ്രഭാത പ്രാർത്ഥനകൾത് മുഴുവനും തീർന്നതിനുശേഷം പിന്നീട് ജപമാല ചൊല്ലും ജപമാല ചൊല്ലിയതിന് ശേഷം ദേവാലയത്തിലേക്ക് പോവാനുള്ള ഒരുക്കങ്ങൾ നടത്തും സാധാരണ രീതിയില് എല്ലാ ദിവസവും ദേവാലയങ്ങളില് പോവാറുണ്ട് വിശുദ്ധ കുർബാനയില് പങ്കെടുക്കാറുണ്ട് എല്ലാ മംഗളകരമായ കാര്യങ്ങൾ നടന്ന ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് മിക്കവാറും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തുടങ്ങുന്നത് തിരിച്ച് പള്ളിയിലേക്ക് പോകുന്നതിനുമുമ്പേ ചെറുതായി ഒരു ചായ കുടിച്ചിട്ടേ മിക്കവാറും പോവുള്ളൂ വീട്ടില്നിന്നുള്ള സാധിക്കുന്ന കുടുംബാഗങ്ങളും എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് തിരിച്ചുവന്നതിനു ശേഷം ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് വീട്ടിലുള്ള എല്ലാവരുമായിട്ട് ഒന്നുചേർന്ന് ആ ദിവസത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ട് എല്ലാവരുടെയും നിർദ്ദേശം അനുസരിച്ച് അന്ന് ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചൊക്ക ആലോചിക്കുകയും അതെങ്ങനെ നിർവഹിക്കാം എന്നുള്ളത് എല്ലാവരുടെയും കൂടി ആലോചനയിൽ ൽ അത് തീരുമാനിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഓരോരുത്തർക്കും അവരവർ ചെയ്യേണ്ട്യ കാര്യങ്ങളെ ഏല്പിച്ചു കൊടുത്തിട്ട് അവരത് ഭംഗിയായിട്ട് ചെയ്യുകയും അതിനായിട്ടെന്തേലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് അത് നിർ നടത്തുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയും എല്ലാവരുടെ പങ്കാളിത്തത്തോടുകൂടിയുമാണ് ഞങ്ങള് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടും എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ദൈവഹിതത്തിനനുസരിച്ചായിരിക്കാന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആണ് പലപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ചുരുക്കിപ്പറഞ്ഞാൽ ഏത് മംഗളകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ദൈവത്തോട് ആലോചന ചെയ്ത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന പ്രേരണ അനുസരിച്ചിട്ടാണ് ഇപ്പോള് പലപ്പോഴും അത് ചെയ്യുന്നത് അതിലെ വീട്ടിലെ മുതിർന്നവരേയും യുവ ജനങ്ങളെയും അല്ലെങ്കിൽ പ്രായമായവരെയും കുഞ്ഞുങ്ങളെയും എല്ലാം നമ്മള് അതിനകത്ത് പങ്കു ചേർക്കും അങ്ങനെ ചെയ്യുമ്പോഴേ എല്ലാവരും അവരവരുടെ പങ്കാളിത്തം അവരവര്ക്ക് ഇതിനകത്തെ പങ്കാളിത്തം ഉണ്ട് എന്നും അവരവരുടെ ഉത്തരവാദിത്തങ്ങളും അവരവര് ചെയ്യേണ്ട്യ കാര്യങ്ങളും ഉദു വേണ്ടിയ പോല ചെയ്തു എന്നും അവർക്ക് ബോധ്യമാവത്തക്കവണ്ണമാണ് പലപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്തുവരുന്നത് അങ്ങനെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ചെയ്യുമ്പോഴേ അത് അവരവരുടെ അവരുടെ കൂടെ ഉത്തരവാദിത്തമായിട്ട് വരുന്നതുകൊണ്ട് എല്ലാവരും അത് അവരവര് കഴിയുന്ന വിധം ഏറ്റവും മാക്സിമം നന്നായി ചെയ്യാൻ സാധിക്കും അതിലൂടെ വീട്ടിലുള്ള മംഗളകരമായ എല്ലാ കാര്യങ്ങൾക്കും അവർക്കും കൂടി പങ്കുണ്ട് ഞാനും കൂടി ഈ ഈ കാര്യങ്ങളില് പങ്കുള്ളവനാണ് അല്ലെങ്കില് ഉത്തരവാദിത്തമുള്ളവനാണ് അവരുടെ കൂടി കാര്യമായിട്ട് തീരുകയാണ് അങ്ങനെ അതിലൂടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മുടെ വീടുകളിലുള്ള വ്യക്തിപരമായ കാര്യം പൊതു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും